ഫോണിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫോണിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് നമുക്കൊന്ന് കോള് ചെയ്യാൻ സഹായിക്കും പിന്നെ നമുക്ക് ഇപ്പം എവിടെയെങ്കിലും വഴി തെറ്റി കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക വഴി ഗൂഗിൾ മാപ്പിലൂടെ വഴി കാണിക്കും പിന്നെ അതുപോലെത്തന്നെ നമുക്ക് ഇപ്പം ഒരുപാട് നമുക്കിപ്പോൾ പരിചയം ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ നമുക്കവരെ വിളിക്കാനൊക്കെ നമ്പറ് സേവ് ചെയ്ത് വെക്കാൻ സഹായിക്കും അപ്പം നമുക്കവരെ വിളിക്കാം ഇപ്പോൾ ദൂരെ എത്ര ദൂരെയാണെങ്കിലും അവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും പിന്നെ അതുപോലെത്തന്നെ നമുക്ക് വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുക്കാൻ കഴിയും അതിനകത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിച്ച സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെത്തന്നെ നമുക്ക് ദൂരെ ഉള്ള എത്ര ദൂരെയാണെങ്കിലും അവരും ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ പറ്റും കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവരുടെ ബന്ധം നിലനിർത്താൻ പറ്റും അങ്ങനെയുള്ള ഉപ ഉപയോഗങ്ങൾ ഒക്കെ ഫോൺ കൊണ്ട് ഉണ്ട് അതുകൊണ്ട് ഒരു നല്ലൊരു പ്രോഡക്ട് ആണ് ഫോൺ എന്ന് പറയുന്നത്